എൻറ്റെ വീടിൻറ്റടുത്തായിട്ട് സ്കൂളിൻറ്റെ അടുത്തൊക്കെ ആയിട്ട് ഒത്തിരി അധികം കലയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോളേജുകളും അതു പോലെ തന്നെ സ്കൂളുകളും ഉണ്ട് അതിനകത്ത് ഒരണ്ണമാണ് എസ് എൻ കോളേജ് ഞങ്ങടെ വീടിൻറ്റെ അടുത്തുള്ളൊരു കോളേജാണ് അവിടെ എസ് എൻ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് അവിടെ സയൻസിനോട് ഒപ്പം തന്നെ ആർട്ടിനെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ട് വരാനും നമ്മളെ നമ്മളിൽ ഉള്ള എല്ലാ കഴിവുകളും പുറത്ത് എടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡാൻസ് ഓഫ് സ്കൂൾ ഉണ്ട് ചിലങ്ക എന്നാണ് അതിൻറ്റെ പേര് അതും എൻ്റെ വീടിൻറ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് പിന്നെ സ്കൂൾ ഓഫ് മ്യൂസിക് അവിടെ അവൈലബിളാണ് പിന്നെയും പറയുവാണെങ്കിൽ ചിത്ര കല ചിത്ര കലയിനെ പ്രോത്സാഹിപിക്കാനും അതിന് അതിൽ മുന്നിൽ അതിൽ മുൻനിര നിൽക്കുന്ന കുട്ടികളെ അഭ്യസിപ്പിച്ച് മികച്ച രീതിയിൽ ആക്കാനും ഇവിടെ ഒരു സ്കൂൾ ഉണ്ട് അവധിക്കാല സ്കൂളാണ് അതായത് കൂടുതലായിട്ടും അവധിക്കാലത്താണ് അത് മുഴുവൻ ദിവസവും ചെയ്യാറ് അല്ലാത്ത ദിവസങ്ങളിൽ അതെല്ലാം കുറച്ച് വളരെ കുറച്ച് സമയം സമയം പരിധി ഉണ്ട് പരിമിധിയുണ്ട് എന്നാൽ കൂടിയത് വളരെ അധികം കുട്ടികളിൽ ഉള്ള കലകളെ മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട് ഞാൻ ചിത്രകല അഭ്യസിച്ചിട്ടുള്ളൊരാളാണ് എനിക്കത് വളരെ അധികം ഉപകാരപെട്ടിട്ടുണ്ട്